ഞങ്ങളുടെ ഗ്രാമത്തിൽ പ്രധാനമായും ഒന്നാമതായിട്ട് ഉപയോഗിക്കുന്നത് മല മുകളിൽ നിന്നും വരുന്ന അരുവിയെ ആണ് അതായത് ചെറിയ തോടുകളും മറ്റുമാണ് വരുന്നത് ഇവയിൽ നിന്നും ലഭിക്കുന്ന ജലത്തിൽ നാട്ടുകാർ അതായത് ഞങ്ങളുടെ ഗ്രാമവാസികൾ എല്ലാവരും തന്നെ പ്രധാനമായും ഇവ പൈപ്പുകളിലൂടെയും മറ്റും അവരവരുടെ ഭവനങ്ങളിലേക്ക് എല്ലാവരുടെയും വീടുകളിലേക്ക് ഇവ എത്തിക്കപ്പെടുന്നു ഇത് പിന്നീട് കുടിവെള്ളത്തിനായും ഭക്ഷണം പാകം ചെയ്യുന്നതിനായും എല്ലാ കൃഷി ആവശ്യങ്ങൾക്കായും എല്ലാത്തിനും ഇത് ഉപയോഗപ്പെടുത്തുന്നു രണ്ടാമതായി വരുന്നത് കിണർ ആണ് കിണറുകൾ അപൂർവമായമാണ് ഞങ്ങളുടെ ഗ്രാമത്തിൽ കാണപ്പെടുന്നത് കാരണം കൂടുതലും കുന്നിൻ ചെരിവുകളാണ് ഇവിടെ ഉള്ളത് അതിനാൽ തന്നെ എന്നാൽ പുഴയോര മേഖലകളിൽ ഉള്ളവർ കൂടുതലായും കിണറുകളെ ആശ്രയിക്കപ്പെടുന്നു പിന്നെ മൂന്നാമതായി വരുന്നത് പുഴകളിൽ ആണ് പുഴകളിൽ നിന്നും കിട്ടുന്ന വെള്ളം പരമാവധി കൃഷി ആവശ്യത്തിന് മാത്രമായാണ് ഉപയോഗിക്കുന്നത് എന്നാൽ ഈ ജലസ്രോതസാണ് ഈ ഗ്രാമങ്ങളിലെ എല്ലാ കൃഷി ആവശ്യത്തിനും ഉപയോഗപ്രദമാകുന്നതും ഈ പുഴയുടെ സാമീപ്യം മൂലമാണ് പരിസര പ്രദേശങ്ങളിൽ എല്ലാവർക്കും കിണറുകളിൽ അടക്കം വെള്ളം ലഭിക്കുന്നതും